ഞാന് ചാർജറ് വാങ്ങിയതാട്ടോ എൻ്റെ ചാർജറ് നാശമായത് കൊണ്ട് വാങ്ങിയതാണ് പക്ഷേ സംഭവം ഇതിൽ ചാർജ് കയറുന്നേ ഇല്ല നമ്മളൊരു ചാർജ് വാങ്ങുമ്പോൾ അതിന് നല്ല പൈസയാന്ന് അവര് പറഞ്ഞു ഒരു വൺ ഇയർ ഗ്യാരണ്ടീ ഉണ്ട് എങ്ങനെ കുത്തിയാലും കയറും അവരുടെ ഫോണിലാണ് കുത്തി നോക്കിയത് എൻ്റെ ഫോണില് ഞാൻ കുത്തി നോക്കിയും ഇല്ല അത് വാങ്ങിച്ച് കൊണ്ട് വന്നിട്ട് എന്താ പറയുക അത് കയറുന്നൊന്നുമേ ഇല്ല കയറുന്നേ ഇല്ല അത് കുത്തി നമ്മള് ഇങ്ങനെ ഇങ്ങനെ ആ നമ്മളിങ്ങനെ അമർത്തി പിടിച്ചുകൊണ്ട് നിന്നാൽ ചാർജ് കയറും പിന്നെ പെട്ടെന്ന് ചാർജ് ഇറങ്ങുകയും ചെയ്യും ഭയങ്കര പൈസയും പോയി സാധനത്തിനൊരു ഒന്നിനൊരു ക്വാളിറ്റി ഇല്ലാത്ത സാധനായിപ്പോയി ചാർജറ്